ഹലോ മെട്രോ ഡ്രൈവിങ്ങ് പരിശീലന കേന്ദ്രമല്ലേ എനിക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ആ രണ്ടും വേണം എനിക്ക് രണ്ടും ഒട്ടും അറിയില്ല എൻ്റെ പേര് അതിര രണ്ടും പഠിക്കാൻ എത്ര പൈസയാവും എത്ര ദിവസമാണ് അപ്പോൾ പരിശീലനം ഉണ്ടാവുക അപ്പോഴേക്കും പഠിക്കാൻ പറ്റുവോ അപ്പോഴേക്കും പഠിക്കാൻ പറ്റി ഇല്ലെങ്കിലോ അപ്പോൾ എപ്പഴാണ് പരിശീലനം തുടങ്ങാൻ പോകുന്നത് ഓ അങ്ങനെയാണോ അപ്പോൾ ലേണേഴ്സ് എങ്ങനെയാണ് കുറച്ച് കടുപ്പമാണോ അപ്പോൾ നമ്മള് വിജയിച്ചത് എങ്ങനെ അറിയാം ക്ലാസ്സുള്ളതപ്പം അറിയാൻ പറ്റുമൊ ഓ ഓക്കേ എല്ലാ ദിവസവും അപ്പോൾ പരിശീലനം ഉണ്ടാവും ഓ ഗ്രൗണ്ടിലെത്ര മണിക്കാണ് അപ്പോൾ ഉണ്ടാവുക ഓ ബാക്കി ദിവസം അപ്പോൾ റോഡിലാരിക്കുവല്ലേ കാറ് ആ താൽപര്യമുണ്ട് ആ ശരി ശരി എത്ര മണിക്കാണ് അപ്പോൾ വരേണ്ടത് ആ ആ ഓക്കേ